സാധാരണയായിട്ട് വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതലുപയോഗിക്കുന്നത് പെൻസിലാണപ്പോള് പെൻസില് നമ്മള് ചാർക്കോൾ പെൻസിലുപയോഗിക്കാറുണ്ട് സാധാരണ പെൻസിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അതിലേറ്റവും കൂടുതല് ഇഷ്ടം എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ചാർക്കോൾ പെൻസിൽ തന്നെ ആണ് പക്ഷെ ആർട്ട് ലൈനിൻ്റെ ചാർക്കോൾ പെൻസിലുപയോഗിക്കാറുണ്ട് ആർട്ട് ലൈനിൻ്റെ തന്നെ സാധാരണ പെൻസിലുപയോഗിക്കാറുണ്ട് വരയ്ക്കുന്നതില് പെൻസില് സീറോ എച്ച് ബി മുതല് ടെൻ ബി വരെയുള്ള പെൻസിലുണ്ട് അപ്പോള് ഇതില് ഓരോ ഷേയ്ഡിൻ്റെ വ്യത്യാസം അനുസരിച്ച് നമ്മള് പെൻസില് മാറ്റിക്കൊണ്ടിരിക്കും ഏറ്റവും ഞാന് ഉപയോഗിച്ചതിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പെൻസിലെന്ന് പറഞ്ഞാല് ആർട്ട് ലൈൻ പെൻസിൽസാണ് പെൻസിലുകളാണ് അപ്പോള് ഈ പെൻസില് വില പെൻസില് മാത്രമല്ല ഈ വരയ്ക്കാനുപയോഗിക്കുന്ന സാമഗ്രികളുടെ വില ഭയങ്കരം അധികമാണ് അതുകൊണ്ടു തന്നെയാണ് സത്യം പറഞ്ഞാല് ഒരുപാട് കഴിവുള്ള ആൾക്കാർക്കും സാമ്പത്തികമായിട്ടുള്ള ഇതില്ലാത്തത് കൊണ്ട് അവരവരുടെ കഴിവിനെ ഒതുക്കിവയ്ക്കുന്നതിന് ഒരു കാരണം കൂടി ആണ് സാധാരണയായിട്ട് ഞാന് ഇപ്പോള് ആർട്ട് ലൈനിൻ്റെ പെൻസിലൊക്കെ വാങ്ങുന്നത് ചിലപ്പോള് ഓൺലൈനില് ഓർഡർ ചെയ്ത് വാങ്ങും അല്ലെങ്കിൽ കടയില് പോയി വാങ്ങും അതിനെ കുറിച്ച് കൃത്യമായൊരന്വേഷണം നടത്തി അത് നല്ല കമ്പനി ആണെന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രം ആ കമ്പനിയുടെ അതേ ഞാൻ ഉദ്ദേശിക്കുന്ന കമ്പനി അത് ആർട്ട് ലൈൻ കമ്പനിയുടെ തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് സാധാരണ ഞാൻ വാങ്ങാറ് അങ്ങനെ വാങ്ങിച്ചിട്ട് വരയ്ക്കുമ്പോള് ഒരു നല്ല ഫീഡ്ബാക്ക് കിട്ടും ആ ഉപയോഗിക്കുമ്പോള് അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും പിന്നെ ഈ പെൻസിലിൻ്റെ ആ ഉപയോഗിക്കുന്ന പിന്നെ പെൻസിലിൻ്റെ കൂടെ അതോടൊപ്പം ഉപയോഗിക്കുന്ന പേപ്പർ സാധാരണ ഫേബർ കാസ്റ്റലിൻ്റെ നല്ല ഹണ്ട്രഡ് ജി എസ് എമ്മിന് മുകളിലുള്ള പേപ്പറുകളൊക്കെയാണുപയോഗിക്കാറ് ഇങ്ങനെ ഉള്ള കൃത്യമായ അതായത് നല്ല ബ്രാൻഡുകളുടെ സാധനം ഉപയോഗിക്കുന്നതു വഴി നല്ല ചിത്രങ്ങള് നമുക്ക് വരയ്ക്കാൻ കഴിയും നല്ല രീതിയില് വരയ്ക്കാനും നമുക്ക് പറ്റും വില പക്ഷേ അധികമാണ് അധികമായി തന്നെയാണ് ഞാൻ കരുതുന്ന്